ഫ്രിഡ്ജിന് പോസിറ്റീവ് കൊടുക്കാനുള്ള പോലെതന്നെ നെഗറ്റീവ് വശങ്ങളുണ്ട് എന്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ പിന്നെ ഫ്രിഡ്ജ് ഓഫാക്കിയിടുമ്പോൾ അതിൻ്റെ അതിനകത്തുള്ള ഐസ് കട്ടയെല്ലാം ഉരുകിയിട്ട് വെള്ളം തുളുമ്പാൻ ചാൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ അടിയിലൊരു ബോക്സ് ഉണ്ടാവും അപ്പോൾ ആ ബോക്സ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് മാറ്റണം അല്ലെങ്കിൽ ഫ്രിഡ്ജ് വച്ചിരിക്കുന്ന സ്ഥലത്തേയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വെള്ളം ഉണ്ടാകും പിന്നെയെന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓഫാക്കിയിട്ടിട്ട് പോവുകയാണെങ്കിൽ അയിൻ്റെ ഉൾ പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ഭയങ്കര മണമൊക്കെ ആയിരിക്കും ഫ്രിഡ്ജിനുള്ളിൽ പിന്നേ പച്ചക്കറികളൊക്കെ എന്താവും നാശമായിപ്പോവും മുൻപേ തന്നെ നാശമായിപ്പോവും ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽക്കൂടിത്തന്നെ പച്ചക്കറികൾ വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ടുമൂന്ന് ദിവസം മാത്രമേ ഇരിക്കൂകയുള്ളൂ അതിൽ കൂടുതൽ ഇരിക്കില്ല നാശമായിപ്പോവും കേടായിപ്പോവുന്നുണ്ട് പിറ്റേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് ഭയങ്കര കൂടുതലായിട്ടാണ് വരുന്നത് ഈ ഫ്രിഡ്ജ് കാരണം അങ്ങനെ കുറേ ദോഷവശങ്ങളും നെഗറ്റീവ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്